മലയാള ഭാഷയെ കേരളീയരായ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ഇന്ന് ലഭിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളിലും വിദ്യാഭ്യാസങ്ങളിലൊന്നും മതിയായ പ്രാധാന്യം മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആണെങ്കിൽ പോലും സ്വന്തം മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് അയക്കാനാണ് മാതാപിതാക്കൾ എല്ലാവരും ശ്രമിക്കുന്നത് അതിനു തന്നെയാണ് തങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ മക്കൾ നല്ല ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കണമെന്നും മാതാപിതാക്കൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് സർക്കാർ സ്കൂളുകളിലെ ഗവൺമെൻ്റ് സ്കൂളില് കുട്ടികൾ തീരെ കുറവാണ് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ് കുട്ടികളെ അയക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു അഭിമാനവും മലയാളം സംസാരിക്കുന്നത് ഒരു അപമാനവുമായിട്ടാണ് ഇന്ന് പലരും കരുതുന്നത് അത് വിദ്യാലയങ്ങളിൽ മാത്രമല്ല മാധ്യമങ്ങളിലും ഭരണ ഭരണ ഭരണ കേന്ദ്രങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ്